ആളുകൾ അഭിമുഖീകരിക്കുന്ന എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാമോ ചെറിയ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ അവരെ എങ്ങനെ സഹായിക്കും ഇതാണ് എനിക്ക് സംസാരിക്കാൻ കിട്ടിയ വിഷയം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പ്രായമായവരിലാണ് ഏറിയ പങ്കും കണ്ടിരിക്കുന്നത് കാരണം സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടർ ടെക്നോളജി ഇത്രയും വികസിച്ചപ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം ഓൺലൈനിലായി അതായത് ഇപ്പം ബാങ്കിൽ പോയിട്ട് ഒരു ട്രാൻസാക്ഷൻ പണ്ട് നടത്തണമെങ്കിൽ നമ്മൾ ചെക്ക് പൈസ പൈസ വിത്ത്ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെക്കിൻ്റെ ഒരു ലീഫ് വീട്ടിൽ വച്ചു സൻ ചെയ്തുകൊണ്ട് കൊണ്ടു പോയിട്ട് വാങ്ങിക്കൊണ്ടു കൊടുത്ത് ആ കൗണ്ടറ് നിൽക്കുകയാണെങ്കിൽ പൈസ കിട്ടും അതേ സമയം അതുപോലെ ഏതെങ്കിലും കാർക്ക് ഏതെങ്കിലും ഒരു ഒരു ബിസിനസ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിയിട്ട് അവർക്ക് പേയ്മെൻറ് നടത്തണണമെന്നുണ്ടെങ്കിൽ പണ്ട് ആണെങ്കിൽ ചെക്ക് എഴുതി അവർക്ക് കൊടുക്കും അതോടെ നമുക്ക് എല്ലാം നമ്മുടെ പ്രശ്നമെല്ലാം തീരുമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ പരിപാടികൾക്കായി ബാങ്ക് ക്യൂ നിൽക്കാനും എനിക്ക് പറ്റുന്നില്ല കാരണം ബാങ്കിലാണെങ്കിലും ടെക്നോളജി ഇമ്പ്രൂവ് ആയപ്പോൾ അവർ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചു ചെല്ലുന്ന ഒരു പത്ത് പേരെ ഉള്ളെങ്കിലും നമുക്ക് അതിൻ്റെതായിട്ട് സമയമെടുക്കും ആ ഒരു ബാങ്കിൽ നിന്ന് കാര്യം സാധിച്ചിട്ടാായിട്ടെ അതേ സമയം പുതിയ ജനറേഷനാണെങ്കിൽ ഇപ്പം ഒരു ഗൂഗിൾ പേ നടത്തും ഒരു പേ്മെൻറ് നടത്തണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്യാഷ് വിട്രോ ആ ഒരു ഒന്നുകിൽ ഇപ്പം എസ് ബി ഐയിൽ ആണെങ്കിൽ യോനോ എന്നുള്ള സോഫ്റ്റ്വെയർ ഇവിടെ കേറിയി ട്ട് ആപ്പിവിടെ കേറിയിട്ട് അവർ പൈസ വിത്ത്ഡ്രോ ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ട് നേരെ പോയി അവർ ഒ ടി പി കിട്ടുന്നത് കൊണ്ട് പോയിട്ട് എവിടെയാണ് അവരുടെന്ന് എ ടി എം കൗണ്ടറിൽ ചെന്നിട്ട് ആ പൈസ ക്യാഷായിട്ട് വേണമെങ്കിൽ ആ പൈസ എടുക്കുക അല്ലെങ്കി ഇപ്പം പൊതുവേ ക്യാഷ് ട്രൻസാക്ഷൻസ് വളരെ കുറയുകയും ചെയ്ത് നടത്തുന്ന പരമാവധി ഇതായിക്കൂടായി ഓൺലൈനിലായി അതി ഇപ്പം അത് പ്രായമായരെെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഒന്നാമത്തെ കാര്യം ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ഗ്രാഹ്യമില്ല കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു മൊബൈല കൂടെ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നടത്താവുന്നത് താല്പര്യമില്ല അതേസമയം ഒരു കൊച്ചു ഇപ്പോഴത്തെ കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ പോലും അവർക്ക് അറിയാം ആമസോണിൽ കൂടെ ഒരു സാധനം വാങ്ങിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അവർ വീട്ടിൽ ഇരുന്ന് കൊണ്ട് അവർക്ക് വേണ്ട സാധനമെല്ലാം അവർ അവർ മുറ്റത്ത് വരുത്തും പേയ്മെൻറ്റും ത്രൂ ഇത് കൂടെ ആകും നമ്മുടെ ഇങ്ങനത്തെ ജിപേയിൽ കൂടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പേയ്മെൻറ് ആപ്പിൽ കൂടെ നടക്കും ആ ഒരു കാര്യത്തിൽ നമ്മുടെ പഴയ തലമുറയ്ക്ക് ഗ്രാഹ്യം കുറവായതുകൊണ്ട് അറിവ് കുറവായത് കൊണ്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഒന്നുകിൽ അവർക്ക് വീട്ടിലുള്ള മറ്റുള്ളവരുടെ ആരെങ്കിലുമുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സഹായം തേടണം അതേപ്പറ്റി അറിവുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്നുണ്ട് അതല്ല എങ്കിൽ അവരെ മറ്റുള്ളവരുടെ അടുത്ത് മൂന്നാം ഒരു വ്യക്തിയുടെ അടുത്ത് പോകണം ചിലപ്പോൾ അവിടെ അവർ കബലിപ്പിക്കപ്പെടാൻ അവസരവുണ്ട് ഇപ്പം ഒരു വ്യക്തി വളരെ മാന്യനായിട്ട് അവതരിപ്പിച്ചു അവ ബ ഞാൻ പൈസ അടുപ്പിച്ചു എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ അക്കൗണ്ടിലൂടെ ഈ പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്താൽ ഒന്നും അറിയത്തില്ല ഈ വ്യക്തിക്കൊന്നും അറിയത്തില്ല പിന്നെ പാസ്ബുക്ക് കൊണ്ടു പോയിട്ട് ബാങ്കിൽ പ്രിൻ്റ് എടുത്ത് തരാൻ പറയുമ്പോൾ അതിൻ്റെ ബാലൻസ് നോക്കുമ്പോഴായിരിക്കും ഇത്രയുംം രൂപ പോയി എന്നുള്ള വിവരം പോലും അവർ അറിയുന്നത് അത് ഈ സാങ്കേതിക ബുദ്ധിമുട്ടുകളെ പ്രായമായവരെക്കൊണ്ട് അവരെ സഹായിക്കാൻ പൊതുവെ ആരും ഇല്ല താനും സത്യം പറഞ്ഞാൽ പല വീട്ടിലും ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പനും അമ്മയും പ്രായമുള്ള അപ്പനും അമ്മയും മാത്രമാണ് പല വീട്ടിലും ഇപ്പം താമസിക്കുന്നത് കാരണം പുതിയ തലമുറകൾ പലരും ജോലി തേടിയൊക്കെ വിദേശത്തേക്ക് പോയി ഇവർ മാത്രം ഉണ്ട് ഇവർക്ക് അവ ഒരുപാട് കമ്മൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും പഠപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വാട്സാപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആപ്പിൽ കേറിയിട്ട് ഞങ്ങളോട് സംസാരിക്കാം എന്നു പറഞ്ഞു സംസാരിക്കാൻ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കുമ്പോഴൊക്കെ ഈ ബട്ടൺ ഞെക്കിയാൽ മതി എന്ന് മാത്രം പറഞ്ഞു കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അവർ ഒന്ന് വിളിക്കുമ്പോൾ അവർ വീഡിയോ കോൾ നടത്തുകയോ അല്ലെങ്കിൽ ഒരു സംസാരിക്കുമ്പോഴത്തേക്ക് ആ ആ ഒരു ഒരു ആ ബട്ടണിൽ പ്രസ്സ് ചെയ്തു സംസാരിക്കും അത്ര തന്നെ ആ സമയം വേറെ എന്തെങ്കിലും കാര്യത്തിന് അവർക്ക് പൈസ എടുക്കണം പൈസയുടെ ആവശ്യം വന്നാൽ പൈസ എടുക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കുറച്ചു പൈസ കൊടുക്കണം അല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ആപ്പ് കാരണം